മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വളർത്തുമൃഗങ്ങളിൽനിന്ന് പണം സമ്പാദിക്കുന്നത് ഒരു മികച്ച വരുമാന മാർഗ്ഗം തന്നെയായിരിക്കും അതായത് വാർത്തകകളിൽനിന്ന് പണം സമ്പാദിക്കാൻ നിരവധി വഴികളുണ്ട് അത് രസകരവുമായിരിക്കും എന്നാൽ അതിൽനിന്ന് വരുമാനം ലഭിക്കുകയും ചെയ്യും അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനെ പെറ്റുകയാണ് ചെയ്യുന്നത് ഉടമകൾ ഇല്ലാത്ത സമയത്ത് അതിനെ പരിപാലിക്കുന്നത് അതിൽനിന്ന് വരുമാനം കണ്ടെത്താൻ സാധിക്കും അവ ഉടമകൾ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ അവ അവരുടെ വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുന്നതിൽനിന്ന് അവർക്കൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കും കൂടാതെ അവയെ വളർത്തുകയും വിൽക്കുകയും ചെയ്യുക അതിൽ നിന്നും ഒരു വരുമാന മാർഗം കണ്ടെത്താൻ സാധിക്കും നിങ്ങൾക്ക് ശുദ്ധമായ ഒരു വളർത്തു മൃഗം ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് വേടിക്കുകയും വാങ്ങുകയും ചെയ്ത് അതിൽനിന്നും ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് ഇവയെ ട്രെയിനിങ്ങിലൂടെയും എല്ലാം പരിശീലിപ്പിച്ച് അവരെക്കൊണ്ട് രസകരമായ അഭ്യാസങ്ങളെല്ലാം കാണിക്കാൻ അതായത് അഭ്യാസങ്ങൾ എന്ന് പറയുമ്പോൾ അതിങ്ങളെ ഒരു പെറ്റ് ഷോ എന്നിങ്ങനെ ഉള്ള പരിപാടികളിലെല്ലാം പങ്കെടുപ്പിക്കുന്നത് കൊണ്ട് അവർക്കും ആ വളർത്തുമൃഗങ്ങൾക്കും ഒരു എൻജോയ്മെൻറ് ആയിരിക്കും അതിലൂടെ നമുക്കും രസകരമായ ഒരു അനുഭൂതി ലഭിക്കുന്നതാണ് അതിൽ കൂടി തന്നെ നമുക്ക് വരുമാനവും കണ്ടെത്താൻ സാധിക്കും ഈ ആശയങ്ങൾക്ക് പുറമേ ഈ ഈ വളർത്തുമൃഗങ്ങളെ വിൽക്കുന്നതിലൂടെയും അവയിൽ നിന്ന് പണം സമ്പാദിക്കാൻ സാധിക്കും കൂടാതെ ഭക്ഷണം കളിപ്പാട്ടങ്ങൾ ആക്സസറികൾ എന്നിവ ഇതിലുൾപ്പെടാം നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ പെറ്റ് സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ സാധിക്കും അത് വളർത്തുമൃഗങ്ങളിൽ നിന്ന് പണം സമ്പാദിക്കാനുള്ള ഒരു മികച്ച മാർഗ്ഗമാണ് പെറ്റ്സിൻ്റെ ഒരു സ്റ്റോറ് തുടങ്ങി അതിൽ പെറ്റ്സിന് വേണ്ടി മാത്രമുള്ള സാധനങ്ങൾ എല്ലാം അടുക്കി അത് വിൽക്കുന്നതും ഒരു നല്ല മാർഗം തന്നെയാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വളർത്തുമൃഗങ്ങളിൽനിന്നും വരുമാനം കണ്ടെത്തുന്നതിനും പല മാർഗ്ഗങ്ങളിലുള്ളതുപോലെ തന്നെ അവരുടെ ചെറിയ ചെറിയ കുഞ്ഞു കുസൃതികളെല്ലാം വീഡിയോ ആയിട്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു വ്ലോഗ് ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്കതിൽ നിന്നും സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് വളർത്തു മൃഗങ്ങളുടെ പ്രദർശനങ്ങളിൽ തന്നെ അവരുടെ കുസൃതികളിൽ തന്നെ നമുക്ക് വരുമാനം കണ്ടെത്താൻ സാധിക്കും വളർത്തൃഗങ്ങളിൽനിന്ന് പണം സമ്പാദിക്കാൻ നിരവധി മാർഗ്ഗങ്ങളിൽ ചിലത് മാത്രമാണിത് ഒട്ടനവധി വേറെയും മാർഗ്ഗങ്ങളുണ്ട് ഇതിൽനിന്ന് പണം സമ്പാദിക്കുന്നതോടൊപ്പം തന്നെ അവരെ ശ്രദ്ധിക്കുകയും ചെയ്യുക സ്നേഹിക്കുകയും ചെയ്യുക